ഡെങ്കി പനി മേലേരിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ന് പല രീതിയിലുള്ള പ്രതിരോധ വഴികൾ നമ്മൾ പിന്തുടരുന്നുണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതുമായ ഒന്നാണ് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് അതായത് ചിരട്ടകളിലോ ബക്കറ്റുകളിലോ എല്ലാം വെള്ളം നിറഞ്ഞുനിൽക്കുകയും അതിൽ കൊതുക് മുട്ടയിടുകയും അവൾ അവർ വളരുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ കൊതുകുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു ഈ ഒരു കാരണത്താൽ കൂടുതൽ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായി നമ്മൾ കാണുന്നത് കണക്കാക്കുന്നത് അതിനൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ വാതിലുകൾ അടച്ചിടുക കൊതുക് അകത്തുകേറാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ കൊതുകുവലകൾ ഉപയോഗിക്കുക ഊ ഉറങ്ങുമ്പോഴും അതുപോലെ വീടിനുചുറ്റിനുമായൊക്കെ കൊതുകുവലകൾ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും കൂട് ഒപ്പം കൊതുകിനെതിരെ ഉപയോഗിക്കുന്ന ഗുഡ് നൈറ്റ് പോലെ ഉള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊതുകുകൾ ഇല്ലാതാക്കാൻ നമുക്ക് ഒരു പരിധിവരെ സാധിക്കുന്നു അതുപോലെതന്നെ ചാലുകൾ പോലുള്ള വെള്ളം ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ ഗപ്പി പോലെ കൊതുക് ലാർവകളെ തിന്നുന്ന മത്സ്യങ്ങൾ ഇടുകയാണെങ്കിൽ കൊതുക് വാ കൊതുക് ലാർവകളായി വരുമ്പോൾത്തന്നെ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ കൊതുക് അധികം ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ നമുക്ക് രോഗങ്ങൾ പരത്താതിരിക്കാനും ഒരു വഴിയുണ്ട് ഇത് ഇതെല്ലാം ആണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന രീതികൾ ഇത് അല്ലാതെ പനി ജലദോഷം പോലെ ഉള്ള രോഗ സിംപ്റ്റംസ് കാണുമ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണുകയും അതുപോലെ അതിനുള്ള പ്രതിരോധ മരുന്നുകൾ എടുക്കുകയും കുത്തിവെപ്പുകൾ എടുക്കുകയും ചെയ്യുന്നതും മറ്റൊരു മറ്റൊരു പ്രതിരോധ വഴി ആണ് ഇതെല്ലം ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന ചില പ്രതിരോധ രീതികൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെ നമുക്ക് കൊതുക് ഇല്ലാതാക്കിയാൽ തന്നെ ഒരുപാട് തടയാൻ സാധിക്കും